കൊറോണയുടെ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത് യാത്ര ചെയ്യാനുള്ള അസൗകര്യവും ബുദ്ധിമുട്ടുകളുമായിരുന്നു അത് ഒരു കടയിൽ നിന്നും സാധനം മേടിക്കാനും അത് സമയം ചിലവുണ്ട് പല തടസ്സങ്ങളും ഉണ്ടാവുമായിരുന്നു പിന്നെ ചില അത്യാവശ്യ യാത്രകൾ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ വീട്ടിൽ കാര്യങ്ങൾ നോക്കിയാൽ ഞാൻ ഒരു റബ്ബർ വെട്ടുകാരൻ ആയതുകൊണ്ട് മറ്റു പ്രശ്നങ്ങൾ ഭക്ഷണസംബന്ധമായിട്ട് ഉള്ള അതിൻ്റെ ജോലി സംബന്ധമായിട്ടും കുഴപ്പങ്ങൾ ഇല്ലായിരുന്നെങ്കിലും ഈ ജോലി ചെയ്താലോ സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങാനും ഒക്കെ അസൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൃത്യസമയത്ത് നമുക്ക് ഒരു കാര്യവും നടക്കത്തില്ല അത് ചിട്ടപ്പെടുത്തിയ ഒരു ഈ രീതിക്ക് പോകാനേ ആ സാധിക്കുകയുള്ളു അതുകൊണ്ട് ആ നമ്മുടെ സമയമല്ലാത്ത കാരണത്താൽ ഒത്തിരി തടസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് അപ്പ അത് ഒരു ഹോസ്പിറ്റൽ പോകുന്നതിനായാലും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ട് പലരോടും പല കാര്യങ്ങളും പലരോടും ചോദിച്ച് അറിയേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം പല തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട് കൊറോണകാലം ഒരു തരത്തിൽ പറഞ്ഞ വലിയ ബുദ്ധിമുട്ടേറിയ ഒരു ഒരു സമയമായിരുന്നു ഭക്ഷണത്തിന് വക ഉണ്ടാക്കി എന്നെങ്കിലും അത് വാങ്ങിക്കൊണ്ണ്ടു വരാൻ തടസ്സങ്ങൾ വളരെ ഏറെ ആയിരുന്നു ഒരു മരണം അതുപോലെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പോക്ക് പരിപാടികൾ വിരളമായിരുന്നു വാഹനത്തിലായാലും പോക്ക് ബുദ്ധിമുട്ടായിരുന്നു എല്ലാവരുടെയും പിന്നെ അനുവാദവും കാര്യങ്ങളും നമ്മൾ വാങ്ങേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം ഒരു അസൗകര്യവും അസ്വാസ്ഥതയും ആയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കൊറോണക്കാലം കൊറോണയെ ഇപ്പോഴും അത് അതിജീവിച്ചിട്ടില്ല ഇന്നും ആ കൊറോണയുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യർ പലരും പല രീതിയിൽ ആയാലും അവയിൽ നിന്ന് ഒരു മോചനം ഇനിയും ഉണ്ടാവുമെന്ന് തന്നെ തോന്നുന്നില്ല അത്രയ്ക്കും വിഷമകരമായൊരു അവസ്ഥയായിരുന്നു കൊറോണ കാലം വീണ്ടും അത് തുടരുകയും ചെയ്യുകയാണ് ഇതിന് ഒരു പരിഹാരമുണ്ടാകാൻ ഇനി എന്താണ് ഒരു മാർഗ്ഗമെന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് കൊറോണയുടെ പരിണിത ഫലമായിട്ടാണ് ഇന്ന് പല രോഗങ്ങളും ഉണ്ടാകുന്നതും മരണം സംഭവിക്കുന്നതും

അവയ്ക്ക് ഒരു പരിഹാരം ഇനി എന്ന് കാണുമെന്ന് തന്നെ നമ്മൾ ഈ കൊറോണ കാലം കഴിഞ്ഞിട്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു